തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന സാംസ്കാരിക സാമൂഹിക പാരമ്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഭാഷാപരമായിട്ടാണെങ്കിൽ ചിലയിടങ്ങളിൽ മാത്രം കണ്ടു വരുന്ന ഒരു ഭാഷ ശൈലിയുണ്ട് കൂടുതലായിട്ടും കേരളത്തിൽ അതായത് തിരുവനന്തപുരത്തിന് പുറത്തേക്ക് പോകുമ്പോൾ പല ജില്ലകളിലും പറയാറുണ്ട് ഇതാണ് തിരുവനന്തപുരം ഭാഷയെന്ന് പക്ഷേ കൂടുതലായിട്ടും തിരുവനന്തപുരം ഭാഷ ഉപയോഗിക്കുന്നത് ചിലയിടങ്ങളിൽ മാത്രമാണ് എല്ലാ തിരുവനന്തപുരം എല്ലായിടത്തും എല്ലാ കോണിലും ഒരുപോലെയല്ല ഭാഷ സംസാരിക്കുന്നത് ചില ശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങൾ ചിലയിടത്ത് മാത്രമേ വരുന്നുള്ളൂ ബാലരാമപുരം പിന്നെ കാഞ്ഞിരംകുളം പാറശ്ശാല അങ്ങനെ ചില സ്ഥലങ്ങളിലേക്ക് മാത്രം ഒറ്റപ്പെട്ട് നിക്കുന്ന ഭാഷ ശൈലിയാണ് തിരുവനന്തപുരം ഭാഷ എന്ന് പൊതുവേ എടുത്ത് പറയാറുള്ളത് അപ്പോൾ ഭാഷാപരമായിട്ട് പറയുകയാണെങ്കിൽ കൂടുതലും കൂടുതലും ആൾക്കാരും മലയാളം തന്നെയാണ് പറയാൻ ഉപയോഗിക്കുന്നത് കൂടുതലും മലയാളം തന്നെയാണ് ഉപയോഗിക്കുന്നത് പറയാൻ പിന്നെ മതപരമായിട്ടാണെങ്കിൽ ഒരു മത സൗഹ്ര സൗഹാർദ ജില്ല എന്ന് തന്നെ പറയാം കാരണം പത്മനാഭസ്വാമിക്ഷേത്രം ആയാലും ബീമാപള്ളി ആയാലും പിന്നെ വെട്ടുകാട് ചർച്ച് ആയാലും അപ്പം എല്ലാ മതത്തിൻ്റെയും ഒരു ഏരിയ എന്ന് തന്നെ തിരുവനന്തപുരത്തെ പറയാം അവിടെ ഇന്ന മതത്തിൻ്റെ ആചാരങ്ങൾ മാത്രമേ ഞങ്ങൾ നോക്കുള്ളൂ എന്നുള്ളൊരു വേർതിരിവില്ല എല്ലാ മതസ്ഥരും ഒരുപോലെ ഒരുപോലെയാണ് എല്ലാ ആഘോഷങ്ങളും ഇപ്പോൾ ഒരു അമ്പലത്തിൽ ഉത്സവം ആയാലും പത്മനാഭസ്വാമിക്ഷേത്രത്തിലെ എന്ത് കാര്യമായാലും അതിൽ മുസ്ലിങ്ങളും പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആയാലും മുസ്ലിമുകളും പൊങ്കാലയിടാറുണ്ട് അതുപോലെ ബീമാപള്ളി ഉറൂസ് നടക്കുന്ന സമയത്ത് ഹിന്ദുക്കളും പള്ളിക്കകത്ത് കയറാറുണ്ട് വെട്ടുകാട് ആയാലും അവിടെ മതം ഇന്ന മത മതസ്ഥർക്കേ കയറാവൂ എന്നുള്ള ഒരു നിയമം ഇല്ല എല്ലാ മതസ്ഥർക്കും കയറാം നമുക്ക് അവിടെ ഇരുന്ന് പ്രാ പ്രാർത്ഥിക്കാം എല്ലാ വിശ്വാസികൾക്കും കയറാം അവിടെ ഇന്ന മതം എന്ന് എടുത്ത് പറയാനായിട്ട് ഇല്ല അതുപോലെ തന്നെ ആചാരങ്ങളും ആചാരങ്ങളിലും ഇന്ന മതസ്ഥർക്കേ അത് ചെയ്യാവൂ അങ്ങനെയല്ല എല്ലാ മതസ്ഥർക്കും അവരുടേതായ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് ആചാരങ്ങൾ ചെയ്ത് പോകുന്നു പിന്നെ സ്ത്രീകൾക്ക് കൂടുതലും മുൻഗണന കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഏതൊരു സർക്കാർ ഓഫീസിൽ ചെന്നാലും ഇപ്പോൾ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് കൂടുതലായിട്ടും സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്നുണ്ട് ഇത് ഒരു ക്യൂവിൽ ചെന്ന് നിൽക്കുകയാണങ്കിലും സ്ത്രീകളാണെങ്കിൽ അവർ കുറച്ചുകൂടെ പ്രയോറിറ്റി നമുക്ക് തരാറുണ്ട്